ആ മോളെ പറഞ്ഞോ ആ എനിക്ക് കുറച്ച് അധികം വർക്കുണ്ട് എന്നാലും മോൾ കൊണ്ടു വരൂ സ്കൂൾ ടൈം ആയതുകൊണ്ട് കുറെ യൂണിഫോമൊക്കെ തയ്ക്കാൻ വച്ചേക്കുവാണ് എന്തായാലും കൊണ്ടു വരൂ പിന്നെ എന്ത് മെറ്റീരിയൽ ആണെടാ ഈ മെറ്റീരിയല് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ സ്റ്റോൺ ഒക്കെ വയ്ക്കണ്ടെ അതിനും ടൈം എടുക്കും ആ എത്രയും പെട്ടന്ന് എത്തിച്ചാൽ ആ സമയത്തിന് നമ്മൾക്ക് തയ്ച്ച് തരാം ഇത്രയും തൈക്കാനുള്ളത് കൊണ്ട് ഇത്ര ടൈം എടുക്കത്തില്ല എടുക്കണം പിന്നെ ഡ്രസ്സിന് വർക്കൊക്കെ ചെയ്യാനും വേണ്ടേ സ്റ്റോൺ ഒക്കെ പുറത്തു വാങ്ങണം പിന്നെ ലൈനിങ് തുണിയൊക്കെ എടുക്കണം അങ്ങനെ ഒക്കെ വാങ്ങി സമയം സ്റ്റിച്ച് ചെയ്ത് തരാൻ പാടാണ് ആ ഇത്തിരി പാട് പെട്ടായാലും ചെയ്തു തരാം അത് സാരമില്ല ഞാൻ വാങ്ങിച്ചോളാം ഞാൻ ബൾക്ക് ആയിട്ടാണ് ഈ മെറ്റീരിയൽ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചോളാം ആ ഓക്കെ ഡാ എനിക്ക് അയച്ചേക്ക് അപ്പം എന്തൊക്കെ മെറ്റീരിയൽ വേണ്ടതെന്ന് വച്ചാൽ എനിക്ക് പുറത്ത് പോയി വാങ്ങിക്കാലോ പിന്നെ എത്രയും പെട്ടന്ന് തുണി കൊണ്ടു വാ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തന്നാൽ നല്ലതാണ് ആ ആ ഓക്കെ മോളെ